ഫേസ്ബുക്ക് പ്രധാനപ്പെട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ വളരെ കുറച്ചു സമയം മാത്രമാണ് ചിലവഴിക്കാറുള്ളത് കൂടി വന്നാൽ പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ ഇരിക്കാറില്ല പക്ഷെ ഫേസ്ബുക്കിൽ ഏകദേശം അര മുക്കാൽ മണിക്കൂറോളം ഒരു ദിവസം ചിലവഴിക്കാറുണ്ട് കൂടുതലായും അതിനകത്ത് കാണുന്നത് നമുക്ക് നമ്മളുമായിട്ടു ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമുക്കു കാണാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് നമുക്കു കാണാൻ സാധിക്കും ടീ വി പ്രോഗ്രാം കുട്ടികളുടെ പാട്ടുകൾ അതുപോലെ കല്യാണ കല്യാണ ദിവസം വിവാഹ വാർഷികങ്ങളൊക്കെ വരുമ്പം അത് ഇടും കുട്ടികളുടെ ബർത്ത് ഡേയൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും ഓരോ ദെ ഓരോ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കൂടുതലായും പോസ് ചെയ്യുന്നത് കുട്ടികളുടെ ബർത്ത് ഡേ വരുമ്പോൾ അവർ ഇപ്പം ഫുട്ബോളിലൊക്കെ വിജയിച്ചു വരുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ളേ ഒരു ഒരു കളിയിൽ വിജയിച്ചു വരുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റുകൾ അവർക്കു കിട്ടിയ മെഡലുകൾ അതൊക്കെ മൊമൻറ്റോസ് ഇതൊക്കെ നമ്മൾ അതിനകത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഇപ്പം നമ്മുടെ റിലേറ്റിവ്സിനെ ആരെയെങ്കിലും വിളിച്ചു പറയാൻ സാധിച്ചില്ലെങ്കിൽ പോലും അതിലൂടെ അവർ അത് അറിയുകയും നമ്മൾ നമ്മൾ അത് നമുക്ക് അവർ ധാരാളം കമൻറ്റ്സ് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇടുകയും നമ്മൾ ചെയ്യാറുണ്ട് കുട്ടികൾക്കാണെങ്കിലും അതു കാണുമ്പോഴേക്കും വളരെയധികം സന്തോഷമാണ് അവരുടെ കഴിവിനെ ഉയർത്തി എല്ലാവരും അതിനെ അപ്രിഷിയേറ്റ് ചെയ്തതെന്ന് ഒരു സന്തോഷം കുട്ടികൾക്കും ഉണ്ടാകാറുണ്ട് പിന്നെ രണ്ടാമതെന്നു പറഞ്ഞാൽ കൂടുതലായിട്ടും കൊടുക്കുന്നത് ആനിവേഴ്സറി വിവാഹ വാർഷികങ്ങൾ വരുമ്പോൾ ആ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത കുറേ നിമിഷങ്ങളാണ് അത് അതൊക്കെ ആ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലൂടെ ധാരാളം ഫ്രണ്ട്സിനെ നമുക്ക് ല് കിട്ടിയിട്ടുണ്ട് അവരുടെ അവരിൽ നിന്നു കിട്ടുന്ന നല്ല കമൻറ്റ്സുകൾ നമ്മൾ അതു ജീവിതത്തിൽ അത് ഒത്തിരി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും സത്യമാകാത്ത കാര്യങ്ങളും ചിലരൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിനോടൊക്കെ നമുക്ക് അനുകൂലിക്കാനും സാധിക്കാത്ത ചില കാര്യങ്ങളാണ് അതൊക്കെ ഒരിക്കലും സത്യമല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അതുപോലെ ചിലർ ചിലരുടെ ഫോട്ടോസൊക്കെ മോർഫ് ചെയ്തതൊക്കെ ഇടുക അതൊക്കെ വളരെ കുറച്ച് എല്ലാം പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട് അതിനെ ഒന്നും ഇഷ്ടപ്പെടാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ നോക്കാതെ പോലും ചിലപ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ടു മാറ്റി വെക്കുന്ന സാഹചര്യങ്ങളിലുള്ള പോസ്റ്റുകളും വരാറുണ്ട് കൂടുതലായിട്ടും ഫേസ്ബുക്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും മരണ വാർത്ത അതുപോലെ തന്നെ മരിച്ച ദിവസം വരുമ്പോഴും പെട്ടെന്ന് ഓർക്കും അയ്യോ അത് ശ് ശരി ശരിയാണല്ലോ അതു കാണുമ്പോൾ ആ ഫേസ്ബുക്കിലൂടെയായിരിക്കും ഇന്നയാൾ ഇന്ന ദിവസം മരിച്ചു മരിച്ച ഡേറ്റ് അയ്യോ ശരിയാണല്ലോ എന്നാലും ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പം ദുരന്തമുണ്ടായി അപ്പം ആ അവിടുത്തെ ആ ഒരു എത്രത്തോളം നമ്മൾ ചെന്നില്ലെങ്കിൽ പോലും ആ അവിടുത്തെ ആ നാട് അനുഭവിച്ച ദുരന്തം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് കൺമുൻപിൽ കാണിച്ചു തരുന്ന ആ അത്രയും പ്രസക്തിയോടുള്ള ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ വരാറുണ്ട് അതൊക്കെ കൃത്യമായിട്ടു വളരെ വിഷമത്തോടെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച അല്ലേ ആ മനുഷ്യർ അനുഭവിച്ച ദുരന്തം വിപത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നല്ല നല്ല വളരെ നല്ല കാര്യങ്ങളൊക്കെ പുത്തുമലയിലെ ആനയെ പുത്തുമലയ്ക്ക് പുത്തുമലയിലെ ദുരന്തം സംഭവിച്ചിട്ട് അഞ്ചു വർഷങ്ങൾ തികഞ്ഞതിൻ്റെ മിനിഞ്ഞാന്ന് അതൊക്കെ നമ്മൾ നമ്മൾ പണ്ട് ഫേസ്ബുക്കിലൂടെയാണ് അതൊക്കെ അറിഞ്ഞത് ഫേസ്ബുക്ക് തുറക്കുമ്പം നല്ല കാര്യങ്ങളും ചീത്തയായ കാര്യങ്ങളുമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായും നല്ല കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്